ഉപജീവനമാർഗ്ഗമെന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നൊരു ഉദാഹരണം ഞങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഷോപ്പിലേക്കാണെങ്കിൽ പോലും നമ്മൾ ഫ്രിഡ്ജ് അതുപോലെ തന്നെ വെദ്യുതികരമായ കുറച്ച് ഇലക്ട്രോണിക്ക് ഉപകാരണങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ നമ്മുടെ പാൽ തൈര് ഈ വക നമ്മൾ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ചീത്തയാവാണ്ടെ ഇരിക്കണമെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കണം അപ്പം വൈദ്യുതി ഇത് ഇല്ലാണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ട് പോകാൻ എന്തായാലും പറ്റില്ല ഇപ്പം അതുപോലെ നമ്മുടെ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണങ്കിൽ പോലും സിസ്റ്റം സിസ്റ്റംസ് ഒക്കെ വീട്ടിലേക്ക് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇതൊക്കെ വീട്ടിലിരുന്ന് ഉപയോഗിക്കുന്നവരല്ലേ അതിനും എന്തായാലും ഇത് വേണമല്ലോ ഇവിടെ കറണ്ട് അതുപോലെ തന്നെ ഈ ഇലക്ട്രിസിറ്റി ഇതെല്ലാം ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇൻവെർട്ടർ ഇനി കറണ്ട് പോയിക്കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതില്ലാണ്ടെ എന്തായാലും നമ്മൾ ജീവിതം മുന്നോട്ട് പോ കൊണ്ട് പോവാനായിട്ട് നല്ലൊരു രീതിക്ക് ജോലി ചെയ്തും ഇതുപോലെ ഉപജീവിത മാർഗ്ഗങ്ങളായിട്ട് കൊണ്ട് പോകുന്നതാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് മുന്നോട്ട് പോവണമെങ്കിൽ ഇങ്ങനെ ഇതെല്ലാം വേണ്ടി വരും